സോഷ്യൽ മീഡിയാസിൽ ഞാൻ സാധാരണ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറില്ല കാരണം എനിക്കെൻ്റെ പ്രൈവസിയാണ് കുറച്ചുകൂടി ഇഷ്ടം ഓ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് കാണിക്കാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് ഈ കിട്ടുന്ന ലൈക്കുകൾ കൊണ്ടൊന്നും എനി എൻ്റെ ജീവിതത്തിൽ വലിയ ഗുണങ്ങളൊന്നും ഇല്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഇതുപോലത്തെ പോസ്റ്റുകളൊന്നും ചെയ്യാത്തത് അതും അല്ല പോസ്റ്റ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി നല്ല ഫോട്ടോകൾ എടുക്കണം എനിക്ക് നല്ല ഫോട്ടോകൾ എടുത്തു തരാനും ആരും ഇല്ല നല്ല ഫോട്ടോകൾ എടുക്കാൻ നല്ല ഫോണും കാമറയൊക്കെ വേണം അതും അല്ല ഈ നല്ല ഫോട്ടോസ് എടുക്കാൻ കുറെ സമയവും നമുക്ക് നഷ്ടപ്പെടുന്നു ആ സമയം നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്